എൻ്റെ പട്ടിയുടെ പേര് ടുട്ടു എന്നാണ് എല്ലാ മൃഗങ്ങളെയും എനിക്കിഷ്ടമാണ് അതിലുപരി പട്ടി എന്ന മൃഗത്തെ എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ട്ടമാണ് എന്താന്നുവച്ചാൽ പട്ടികളെക്കുറിച്ച് നല്ല നല്ല ഉപകാരങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട് നമ്മളെ വീട്ടീൽ തന്നെ ഇപ്പോൾ നമ്മള് വളർത്തുവാണെങ്കിൽ പട്ടീനെ വളർത്തുവാണെങ്കിൽ ഇപ്പൊൾ എന്താ പറയുക നമുക്ക് എന്തേലും സിറ്റുവേഷൻസില് എന്തെങ്കിലും പറ്റിയാൽ തന്നെ അവരെ നമ്മുടെ കൂടെ കൊണ്ട് നടക്കുകയാണെങ്കില് നമ്മള് അതുപോലെ നമ്മള് അവര് നമ്മളെ സ്നേഹിക്കും നമ്മള് സ്നേഹിക്കുന്നതിലുപരി പട്ടികൾക്ക് കുറച്ചുകൂടി നല്ല സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുപോൽത്തന്നെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ നമ്മളെ കൊണ്ടുവിടാനൊക്കെ പട്ടികൾ വരും ഇപ്പം ഇപ്പോൾ നമ്മുടെ വീടുകളിൽ താരമായി താരമായിരിക്കുന്നതുകൊണ്ടുതന്നെ ഇപ്പോൾ ഓരോ സിനിമകളിലും പാട്ടുകളും എല്ലാം പട്ടികൾ താരമായി മാറികൊണ്ടിരിക്കയാണ് അതുപോലെത്തന്നെ എൻ്റെ പട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവനാണെങ്കില് നല്ല സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നെ ഇപ്പോൾ എവിടേലും പോകണമെങ്കിൽ എന്നെ വണ്ടി വരുന്നവരെ കൊണ്ടാക്കാൻ അവൻ വരും അതുപോൽത്തന്നെ നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം അതിന് കൊടുത്തില്ലെങ്കിലും നമ്മളോട് ദേഷ്യപ്പെടുവോ അങ്ങനത്തെ ഒരു പ്രശ്നവും കാര്യങ്ങളും ഒന്നുമില്ല രാത്രി ഉറങ്ങാതെ അവര് നമ്മുടെ നമ്മുടെ വീടിന് കാവലായി മാറുന്നതും മാറും കാര്യങ്ങളൊക്കെയാണ് പിന്നെ പട്ടികളെക്കുറിച്ച് പറയാനാണെങ്കിൽ പലതരം പട്ടികൾ നമ്മുടെ ഇപ്പോൾ ഈ കാലത്തിൽ ഉണ്ട് ഇപ്പോൾ ഒരു ടൈമിലാണെങ്കിൽ പട്ടികള് ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുവാണ് ഈ ചിലവരാണെങ്കിൽ പട്ടികള് പട്ടികള് ട്രെൻഡായി മാറിയ സമയത്ത് വീഡിയോസും ഫോട്ടോസും എടുക്കാൻ വേണ്ടി മാത്രം പട്ടികളെ വളർത്തുന്നതുണ്ടേനൂ അതുപോലെത്തന്നെ നമ്മൾ എന്താ മിണ്ടാപ്രാണികളായ മിണ്ടാപ്രാണികളാണ് ഈ പട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഈ പട്ടിയെ നമ്മള് നോക്കുമ്പോൾ അത്ര നന്നായി നോക്കിയാൾ അതിൻ്റെ അതിൻ്റെ എല്ലാ നന്മയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും പിന്നെ പറയുവാണെങ്കില് പട്ടികളെ കാണാൻ നല്ല ക്യൂട്ട്നെസ്സ് ആണ് പലതരം പട്ടികളും നമ്മുടെ ഇപ്പോൾ ഈ ഇവിടെ ഉണ്ട് പിന്നെ പട്ടികള് പല പല കളേഴ്സും ഓരോന്നിനേയും കാണാൻ ഓരോ ഡിഫറെൻസ് ഉണ്ട് ഓരോ ഓരോന്നിനും ഓരോ ഭംഗിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ പറയുകയാണെങ്കിൽ പട്ടികളെ പട്ടികളെ നമ്മൾ നന്നായി സ്നേഹിക്കുകയാണെങ്കിൽ അതില് അതുപോൽത്തന്നെ അവര് നമ്മളെ തിരിച്ചും സ്നേഹിക്കും അതിലുപരി പട്ടികള് നമ്മുടെ വീടിനു കാവലായി മാറുകയും നമുക്ക് ഒരു എന്തേലും നമ്മുടെ എന്തേലും സിറ്റുവേഷൻസില് എന്തേലും പറ്റിയാല് മീൻസ് വേറെ മനുഷ്യൻമാരാരും നമ്മളെ സഹായിച്ചില്ലെങ്കിലും പട്ടികൾ നമുക്ക് പട്ടികൾ അവർക്ക് പറ്റുന്നതുപോലെ നമ്മളെ സഹായിക്കുകയും അതുപോലെത്തന്നെ നമ്മളെ സുരക്ഷിതമാക്കുകയും ചെയ്യും മനുഷ്യരിൽ ഉപരി നമ്മളെ ഓരോരുത്തരേയും സുരക്ഷിതമാക്കാൻ ഓരോ പട്ടികൾക്കും അതിപ്പോൾ ഏത് പട്ടികളാണെങ്കിലും എങ്ങനത്തെ പട്ടികളാണെങ്കിലും എവിടെയുള്ള പട്ടികളാണെങ്കിലും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും നല്ല സഹായകരവുമാണ്